ഇത് ജീ വീ ട്രാവല്സ്സല്ലേ അതെ ഞാനൊരു ട്രാവല് പാക്കേജിനെ അന്വേഷിക്കാൻ ഇന്ക്വയറിക്ക് വേണ്ടി വിളിക്കുന്നത് ആയിരുന്നു നമുക്കൊരു അടുത്ത ചൊവ്വാഴ്ച്ച ദുബായി നിന്ന് എന്റെ ഫാമിലി വരുന്നുണ്ട് സൊ അവരെ പിക്ക് ചെയ്ത് കവിയൂര് മഹാദേവി ടെമ്പിളിപ്പോണം പിന്നെ ഒരു വണ് ഡേ ട്രിപ്പ് പോലെ പ്ലാന് ചെയ്യണം നമുക്ക് ബാക്കി എവിടെലും പോകാന് പറ്റിയാൽ പോയി വൈകുന്നേരവൊരു സെവെന് തേട്ടി ആകുമ്പോഴത്തേക്ക് എയര്പ്പോട്ടി തിരിച്ച് ഡ്രോപ്പ് ചെയ്യാവുന്ന രീതീൽ ഒരു ട്രി ട്രിപ്പ് പ്ലാന് ചെയ്യാനുള്ള പേക്കേജിനെക്കുറിച്ചറിയാന് വേണ്ടി വിളിക്കുവായിരുന്നു ദുബായീന്ന് ടൂസ്ഡേ വരുന്നു അന്ന് തന്നെ തിരിച്ച് പോകുന്നു അവര്ക്ക് ജെസ്റ്റാ ടെമ്പിളിപ്പോവാന് വേണ്ടി വരുന്നതാണ് യാ ടെം ടെമ്പിളിപ്പോവാന് വേണ്ടി വരുന്നയാണ് പിന്നെ ബാക്കി ഉള്ള ടൈം ഉണ്ടായോണ്ട് ലൈക്കെവിടെലും കൂടൊന്ന് കയറാവുന്ന രീതീൽ ഒരു പാക്കേജ് അറിയാന് വേണ്ടി വിളിച്ചത് ഫ്ലൈറ്റ് ഏര്ലി മോര്ണിങ്ങൊരൂ ഫോര് ത്തേട്ടി ആവുമ്പം വരും

ലൈക് നമുക്ക് ഞാൻ പറയട്ടെ നമുക്ക് അവിടെ അമ്പലത്തീന്ന് തിരിച്ച് ടെമ്പിളീന്ന് തിരിച്ച് വരുന്ന റൂട്ടാണേലും മതി നമുക്കിപ്പം ലൈക്ക് നെടുമ്പാശ്ശേരി വരെ എത്തുന്ന റൂട്ടിലെവടേലും കാണാൻ പറ്റുന്ന വിസിറ്റിങ്ങ് സ്ഥലമുണ്ടോ അങ്ങനെ ആ ഇത് ഒരു സെവെന് തേട്ടി ആകുമ്പോൾ എയര്പ്പോട്ടി എത്തിക്കാവുന്ന രീതീൽ ആ നിങ്ങളെ പേക്കേജക്കെ എങ്ങനാണ് ഇത് വരുന്നത് പാക്കേജ്

പതിനായിരവോ അല്ല നിങ്ങളപ്പം കിലോമീറ്റർനെത്ര രൂപ വച്ചാ ചാര്ജ്ജ് ചെയ്തെ ഹോക്കെ നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന വണ്ടി എങ്ങനത്തെ ആയിരിക്കും ലൈക് ഏ സീ വി ആണോ അതോ അത് അഞ്ചുപേരുണ്ട് പിന്നവരുടെ ലഗ്ഗേജുങ്കാണും ലൈക് നമുക്കീ എസ്സീരീസല്ല നമുക്കീ മറ്റേ ഈ മിനി ട്രാവലര് ടൈപ്പക്കെ ഇല്ലേ ഇലെവന് സീറ്ററക്കെ വരുന്ന ടൈപ്പ് ലൈക് ലഗ്ഗേജൊണ്ട് നമുക്ക് തിരിച്ച് അവര്ക്ക് കൊടുത്തു വിടാനുള്ള ലഗ്ഗേജും ഐറ്റെംസുവെല്ലാവില്ലേ അതെല്ലാം നമ്മളിതേ കയറ്റുവല്ലയോ ഓകെ ആ ഈ നമ്പറെ വിളിച്ചാൽ മതി പിന്നേ പിന്നേന്ന് പറയാന് അവര്ക്കൊരു ഹോട്ടൽല് റൂമ് കൂടെ നമുക്ക് ജസ്റ്റ് ഫ്രഷ അപ്പാകാന് വേണ്ടി എടുക്കണം ആ ഓക്കെ ആ ഓക്കെ അങ്ങനാണെങ്കിൽ നിങ്ങൾ കൊ ഓക്കെ